കൃഷിക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് തലങ്ങളായി ഉപയോഗപ്പെടുത്താം പണ്ടത്തെ കാലത്തുള്ളതും ആധുനിക കാലത്തുള്ളതും ആധുനിക കാലത്ത് വളരെ ടെക്നിക്കായിട്ടും മെഷീനുകളിലൂടെയാണ് കൃഷിക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമുക്ക് കണ്ടുവരാറുള്ളത് പഴയ കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും മൃഗങ്ങളെ ഉപയോഗിച്ചും പിന്നെ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളവ ഇതിൽ പ്രധാനമായിട്ടും കാണാറുള്ളത് പ്രധാനമായിട്ടും പഴയകാലത്ത് മനുഷ്യന്മാർ തന്നെയാണ് പാടങ്ങൾ കിളക്കാനൊക്കെ മുന്നിട്ടിരുന്നത് പിന്നെ മൃഗങ്ങളെ കൊണ്ട് വരും പശു പോലത്തെ കാള പോലത്തെ ഇതിനെ ഉഴുത് മറിക്കാൻ കൊണ്ട് വരും പിന്നീട് ട്രാക്ടർ വന്നു പിന്നെ ഫുള്ളും ഇലക്ട്രിക്ക് ആയിക്കൊണ്ട് മാറി പിന്നെ ഫുള്ളും ടെക്നിക്കായി മാറി അതിൽ നമ്മൾ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വിവിധ തരം നമ്മൾക്ക് കാണാൻ സാധിക്കും കൃഷിപ്പണികൾ അനുയോജ്യമായവ ആണ് വിവധ പഴയ മുതൽ ഉപയോഗിച്ചിരുന്ന പാരമ്പര്യ ഉപകരണവും കാലാന്തരത്തിൽ വികസിച്ചെടുക്കുന്ന സന്ദർഭങ്ങളുമാണ് പ്രധാന കൃഷി ഉപകരണത്തെക്കുറിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായി പറയുകയാണെങ്കിൽ ഒന്നാമത്തേതാണ് കല്ലു പലക മലയാളത്തിൽ പറയുക അതായത് മണ്ണ് ഇത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കും പാരമ്പര്യമായി കാളകൾ ഉപയോഗിച്ചു എന്നാണ് ഇതിൻ്റെ ഉപയോഗം ഇപ്പോളീ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമാണ് രണ്ടാമത്തേതാണ് കൂമ്പ കൊയ്യാനും മണ്ണ് ചവിട്ടാനും വിത്ത് നടാനും ഉപയോഗിക്കുന്നു കൈക്കൊണ്ട് ഉപയോഗിക്കുന്ന ലളിതമായ ഉപകരണം മൂന്നാമത്തത് മുരമ വിളകൾ കൊയ്യാൻ ഉപയോഗിക്കുന്ന അക്രമായി ഇരിക്കുന്ന ഒരു ഉപകരണം പാരമ്പര്യമായി കൈകൊണ്ട് വിള നുറുക്കാനാണ് ഉപയോഗിച്ചിരുന്നത് നാലാമത്തെ നാട്ടുശീല വിത്തുകൾ മണ്ണിൽ സമപ്രമാണത്തിൽ നട്ടുവെയ്ക്കാൻ ഉപയോഗിക്കുന്നു പഴയ കാലത്ത് കൈക്കൊണ്ടായിരുന്നു വിത്തുകൾ നട്ടിരുന്നത് ഇന്ന് കാലത്ത് നാട്ടുശീല എന്ന് ഇന്ന് സീഡ് ഡ്രില്ല് എന്ന് ഇംഗ്ലീഷിൽ പറയും അത് അതെന്താണ് വിത്ത് പിന്നെ അഞ്ചാമത്തേതാണ് ജലസേചന അതായത് ചൂള കൊണ്ട പമ്പുകൾ ചക്കരം മുതലായവ ജലസേചനത്തിൽ ഉപയോഗിക്കുന്നു ഇന്ന് അതിന് പകരമായിട്ട് മോട്ടോറ് പമ്പുകൾ ഡ്രില്ലറ് അങ്ങനെ ഇരിഗേഷനൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു ആറാമതാണ് തൃശ്ശൂലം അതായത് കൃഷിമേൽ വളരുന്ന കീറുകൾ നീക്കാന് പിന്നെ മണ്ണ് അലസാൻ ഉപയോഗിക്കുന്നു ഏഴാമത്തേതാണ് നമ്മൾ പൊതുവെ കണ്ടു വരുന്ന ട്രാക്ടർ കൃഷിയുടെ പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ബഹുമുഖ ഉപകരണ ട്രാക്ടറ് അതായത് വാഹനം പോലുള്ള ഉപകരമാണ് അതായത് ഉഴുതാൻ വിത്ത് നടാൻ കൊയ്ത്ത് മുതലായവ അനുയോജ്യമായതിനൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്ടർ പിന്നെ നമ്മൾ കൊയ്തിണ്ട് അതിലാണ് നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ട് പോവുക പിന്നെന്തെന്ന് ഇവ ഉപകരണം കർഷകൻ്റെ ജോലി ലളിതമാക്കുകയും സമയവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പാരമ്പര്യ ഉപകരണങ്ങൾ പരിസ്ഥിതി സൗക്യമാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കൂൾ ലെവൽ പ്രബന്ധം അവതരിപ്പിച്ച് കൊണ്ട് നമുക്ക് പഠനങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നതാണ്